രാജാറാം മോഹൻ റോയ് നിർത്തലാക്കിയ സതി എന്ന ഒരു ആചാരത്തെ കുറിച്ച് ഞാൻ പഠിച്ചിട്ടുണ്ട് അറിഞ്ഞിട്ടുണ്ട് അതായത് സതി എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ ഭ ഒരു ഭാര്യയും ഭർത്താവും ഭാര്യയുടെ ഭർത്താവ് പെട്ടെന്ന് എന്തെങ്കിലും അസുഖം വന്നിട്ടോ എങ്ങനെയെങ്കിലും മരണപ്പെടുന്നു അപ്പോൾ ആ ഭാര്യയെ ഭർത്താവ് മരണപ്പെട്ട സ്ത്രീയെ പുനർവിവാഹത്തിന് അയയ്ക്കാതെ അവളെയും കൂടി കൊല്ലുന്ന ഒരു ഏർപ്പാടാണ് സതി എന്ന് പറയുന്ന ഈ നീച പ്രവർത്തി രാജാറാം മോഹൻ റോയ് ആണ് ഇത് നിർത്തലാക്കാൻ കാരണക്കാരനായത് ഇത് ഇങ്ങനെയുള്ള ഒരു ദുരാചാരം നിർത്തലാക്കിയത് രാജാറാം മോഹൻ റോയ് ആണ് അതായത് ഒരാളുടെ കുറേ ആൾക്കാരുടെ എതിർപ്പിനെ മറികടന്നു കൊണ്ടാണ് രാജാറാം മോഹൻ റോയ് ഇങ്ങനെയുള്ളൊരു ചരിത്രനേട്ടം ചരിത്രം ഉള്ള ഒരു പുരോഗമനമായൊരു കാര്യം സൃഷ്ടിച്ചതവിടെ സതി നിർത്തലാക്കിയതിലൂടെ വലിയൊരു ദുരാചാരമാണ് രാജാറാം മോഹൻ റോയ് ജനങ്ങളുടെ മനസ്സിൽ നിന്നും ജനങ്ങളുടെ സ്വഭാവത്തിൽ നിന്നും എടുത്തു കളഞ്ഞത് അതേപോലെ തന്നെ ഇപ്പം ചില വിവാഹങ്ങളെ ബാധിക്കുന്ന ആചാരങ്ങളെ കുറിച്ചുള്ള അഭിപ്രായം എന്താണെന്ന് ചോദിച്ചാൽ ജാതി വിവേചനം പോലെയുള്ള സ്ത്രീ ജാതി വിവേചനം പോലെയുള്ള കാര്യങ്ങളിൽ എനിക്ക് വളരെ എതിരഭിപ്രായാണ് ജാതി എന്ന് പറയുന്നത് നമ്മുടെ കാലഘട്ടത്തിൽ തന്നെ എടുത്തു മാറ്റപ്പെടേണ്ട ജാതി മതം എന്നൊക്കെ നമ്മുടെ കാലഘട്ടത്തിൽ തന്നെ എടുത്ത് മാറ്റപ്പെടേണ്ട ഒന്നാണ് അതായത് ജാതിയുടെ പേരിലുള്ള വേർതിരിവൊക്കെ വളരെയേറെ ജാതിയുടെ പേരിൽ മാത്രമല്ല ജാതിയുടെ പേരിലും വർണ്ണത്തിൻ്റെ പേരിലും നിറത്തിൻ്റെ പേരിലും ലിംഗത്തിൻ്റെ പേരിലും ഇവിടെ വേർതിരിവ് നടക്കുന്നുണ്ട് ഇത്തരത്തിലുള്ള വേർതിരിവുകളൊരിക്കലും നടക്കാൻ പാടുള്ളതല്ല എന്ത് എല്ലാവരും മനുഷ്യരാണ് എന്നൊരു കാഴ്ചപ്പാട് മാത്രം മതി എന്തിനാണ് ഇതൊക്കെ എന്തിനാണ് ജാതി എന്തിനാണ് ഈ ക വർണ്ണം ഇതിലൊക്കെ എന്ത് കാര്യമാണുള്ളത് എന്ന് എനിക്ക് ശരിക്കും അറിയില്ല ഇതിനോടൊക്കെ തീരെ യോജിപ്പില്ല എങ്ങനെ ഇത്തരത്തിലുള്ള ആളുകളോ ആളുകളെ ആളുകൾ മാറുക തന്നെ ചെയ്യണം അതൊരു രോഗമാണ് ജാതി വിവേചനം എന്നൊക്കെ പറയുന്നത് ജാതീയ ചിന്ത എന്നൊക്കെ പറയുന്നത് വർണവെറി എന്നൊക്കെ പറയുന്ന ഒരു രോഗമാണ് അതൊരു നമ്മുടെ സമൂഹത്തിൽ നിന്ന് എടുത്തു മാറ്റപ്പെടേണ്ട ഒരു സംഭവങ്ങളാണ് ഇതൊക്കെ എന്നാണ് എനിക്ക് അഭിപ്രായം